ഇപ്പഴത്തെ പുതിയ തലമുറക്ക് മലയാള ഭാഷ കൂട്ട അക്ഷരങ്ങൾ ഓരോ വാക്കുകള് അത് കൂട്ടി വായിക്കാനോ അത് പക്ഷേ മലയാള അക്ഷരങ്ങൾ അത് എഴുതാൻ പോലും അറിയാൻ മേലാത്തൊരു ഒരു വളർച്ചയാണിപ്പം ഇൻറ്റർനെറ്റിലൂടെയെല്ലാം വന്നിരിക്കുക അതുതന്നെയല്ല പണ്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എഴുതുകയും അത് മലയാള വാക്കുകള് അക്ഷരങ്ങളുവൊക്കെ എഴുതി അത് കൂട്ടി വായിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അതുപോലെ തന്നെ പത്രം റേഡിയോ വാർത്ത കേക്കുമായിരുന്നു ഇപ്പം വാ ലൈബ്രറിയിൽ പോയി പുസ്തകം വായിക്കുമായിരുന്നു ഇപ്പം അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും പുതിയ സ് തലമുറയിലില്ല സാങ്കേതിക വിദ്യയും ഇപ്പം അങ്ങനെയുള്ള വിദ് ഇതൊന്നും വളർച്ച അങ്ങനെയുള്ള ഇതൊന്നും ഇപ്പോഴെങ്ങും വന്നിട്ടില്ല അത് തന്നെയല്ല ഇപ്പഴത്തെ തലമുറക്ക് മലയാള ഭാഷ സംസാരിക്കുന്നതിന് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എഴുതുന്നതിനും കൂട്ടി വായിക്കുന്നതിൻറ്റേതായ അതിൻറ്റേതായ പിന്നെ അവർക്ക് അത് എഴുതാൻ പിന്നെ അത് തന്നെയല്ല ഒരു ലെറ്റർ എഴുതണമെങ്കിൽ പോലും അവർക്ക് അത് എങ്ങനെ മലയാളത്തിൽ എഴുതാൻ പറഞ്ഞാൽ അവർക്ക് എഴുതാൻ തന്നേ ബുദ്ധിമുട്ടുണ്ട് അത് മംഗ്ളീഷിലാണെങ്കിൽ മാത്രേ ഇപ്പഴത്തെ കുട്ടികൾക്ക് കൂടുതൽ താൽപ്പര്യമാണ് അത് സംസാരിക്കാനുമറിയാം അല്ലേ മലയാളത്തെക്കുറിച്ച് അവർക്ക് കൂടുതൽ അറിവ് ഇല്ല അത് പറയാനുള്ള കഴിവും അവർക്ക് ഇല്ല എഴുതാനും അറിയത്തില്ല